ആ എൻ്റെ പേര് അഫീനയാണ് ഞാൻ ഇവിടെ കേരളത്തിൽ പിന്നെ ടൂറിസ്റ്റ് സ്ഥലത്തിനെ കുറിച്ചൊക്കെയൊന്ന് അറിയാൻ വേണ്ടീട്ടാരുന്നേ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടീട്ടായിരുന്നു ആ പ്ലേസിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടീട്ടൊക്കെയായിരുന്നു ആ ആ ഞങ്ങൾ കേരളം മൊത്തത്തിലൊന്ന് കറങ്ങാൻ വേണ്ടീട്ടായിരുന്നേ ഞാനിപ്പം കോഴിക്കോടുണ്ട്

ആ ആ ഓക്കെ ഓക്കെ

ഈ ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ നെയ്തെടുക്കുന്ന സ്ഥലങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അവിടെ അ ആ അങ്ങനൊക്കെയൊന്ന് കാണാൻ വേണ്ടീട്ടൊക്കെയായിരുന്നു അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആ ആ ഓക്കെ

ആ ഓക്കെ ഓക്കെ

ആ പിന്നെ എന്താ പേര് കേട്ട അമ്പലങ്ങൾ കോവിലകങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ ആ ആ

ആ ആ ആ ആ ആ ഓക്കെ അഹാ ആണോ ഓക്കെ ഓക്കെ

ആ ഓക്കെ എങ്ങനാ ആ ഒന്ന് നോക്കീട്ട് ഒന്നു വിളിക്കാവോ ആ ഓക്കെ ആലോചിച്ചിട്ട് വിളിക്ക് കേട്ടോ